ഹലോ ഹലോ അങ്കിളേ ഞാൻ ബിൻസി ആയിരുന്നേ ആ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു യൂണിഫോമും ബ്ലൗസും തയ്ക്കാൻ തന്നില്ലായിരുന്നോ ആ എൻ്റെ അടുത്ത് ഇന്ന് വൈകിട്ട് തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് രാവിലെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വിളിച്ചതായിരുന്നു കഴിഞ്ഞായിരുന്നോ അയ്യോ അങ്ങ അയ്യോ അങ്കിളേ വെട്ടിവെച്ച് എനിക്ക് നാളെ കോളേജിൽ പോവേണ്ടതാണ് അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ അല്ലേ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഇവിടുന്ന് തയ്ച്ച് കൊണ്ടുപോയാലേ എനിക്ക് നാളത്തെ കഴിഞ്ഞ് കോളേജിൽ ഇടാൻ പറ്റുള്ളൂ പിന്നെ യൂണിഫോം ഇല്ലെങ്കിൽ എന്നെ അവർ കയറ്റില്ല അയ്യോ കൊറിയർ അയച്ചാൽ എന്നാ ആണെങ്കിലും രണ്ട് ദിവസം പിടിക്കും ഇന്ന് വൈകിട്ട് ഇരുന്നാൽ യൂണിഫോം രണ്ട് ജോഡിയുണ്ട് രണ്ട് കോട്ട് രണ്ട് പാൻ്റ് രണ്ട് ഷർട്ട് പിന്നെ രണ്ട് ബ്ലൗസുമാണ് ഞാൻ തന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ആണെങ്കിലും അങ്കിൾ എൻ്റെ യൂണിഫോം തിരിച്ചും മറിച്ചും ഒക്കെയാണ് തയ്ച്ച് വെച്ചത് ഇത്തവണയെങ്കിലും അതുപോലെ ഒന്നും തയ്ച്ച് വയ്ക്കരുത് അങ്കിളേ ഞാൻ അതിന് കഴിഞ്ഞ ആഴ്ച തന്നതല്ലേ ഇപ്പോൾ ഇത്ര ആഴ്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലോ എല്ലാം അവസാനത്തോട്ട് വെച്ചതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത് എന്നാലും മാക്സിമം ഇന്ന് വൈകിട്ട് കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ കാരണം ഞാൻ നാളെ രാവിലെ പോവും അങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ പോരാ അതോ ഞാൻ ഇനിയിപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് വരണോ തീരില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിപ്പം പരിപാടിക്ക് ഇടണ്ടേ ക കഴിഞ്ഞ തവണ ഞാൻ ഇതിങ്ങനെ തന്നപ്പോളും ഇങ്ങനെ തന്നെയാണ് അങ്കിൾ പറഞ്ഞത് എന്നിട്ട് പിന്നെയും രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് തന്നത് ആ നാട്ടുകാരെല്ലാം ഇങ്ങനെ പറയുന്നെങ്കിൽ ഒരു കാരണം ഉണ്ട് എൽ ആ എല്ലാ തവണയും അങ്കിളിന് ഓരോ കാരണങ്ങളുണ്ടല്ലോ ആ എന്തായാലും ആ വൈകിട്ട് എന്തായാലും ഞാൻ വിളിക്കാം എന്നിട്ട് ഞാനാ ബ്ലൗസിൻ്റെ ഡിസൈൻ വാട്സപ്പിൽ അയച്ചിരുന്നു അത് കണ്ടിരുന്നോ അതനുസരിച്ചാണോ വെട്ടിയത് കഴിഞ്ഞ തവണ ഞാൻ കൈ വയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്കിൾ കുടക്കൈ വെച്ചിരുന്നു ഞാൻ വയ്ക്കണമെന്ന് പറഞ്ഞതിന് കൈ വെച്ചിട്ടും ഇല്ലായിരുന്നു

ആ ഈ തവണ തിരു ആ ഈ തവണ എന്തായാലും തിരിഞ്ഞ് പോവരുത് ചുമലക്കാണ് സ്ലീവ്ലെസ്സ് പച്ച ബ്ലൗസ് കയ്യുള്ളതാണേ ആ അപ്പോൾ എന്നാൽ ഞാൻ വൈകിട്ട് വന്നേക്കാം എന്തായാലും നാളെ കൊണ്ട് എനിക്ക് കിട്ടിയിരിക്കണം ആ ഓക്കെ ശരി എന്നാൽ